ഹലോ ആ കൊറിയർ ഓഫീസ് ആണോ ആ ഞാനേ കഴിഞ്ഞ ദിവസം ഒരു ഡെലിവറിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഹാൻഡിൽ വിത്ത് കെയർ എന്നത് പ്രത്യേകം സ്റ്റിക്കർ ചെയ്താണെ അയച്ചിരുന്നത് പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മൊത്തവും ഡിസോർഡർ ആയിട്ടാണല്ലോ കിട്ടിയത് പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പഴത്തേന് ഞാൻ ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പഴത്തേന് അത് ഫുള്ളി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിട്ടിയേക്കുന്നത് ഇത് ആരുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് ആണ് ഞാൻ അവിടെന്ന് അയച്ച അവരെ അടുത്ത് ചോദിച്ചിരുന്നു അവർ ക്ലിയർ ആയിട്ടാണ് അയച്ചേക്കുന്നത് നിങ്ങളുടെ കയ്യിൽനിന്നുള്ള മിസ്റ്റേക്ക് ആണ്

ഓ ഓക്കെ ഇപ്പം അവരുടെ കയ്യിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ കംപ്ലെയിൻറ്റ് കൊടുക്കും നിങ്ങൾ എനിക്ക് അതിന് നഷ്ടപരിഹാരം തരേണ്ടി വരും കാര്യം കാര്യം ഞാൻ അയച്ച അയാൾ അയച്ച വ്യക്തി ചോദിച്ചു അവിടെ ഒരു കുഴപ്പവും ഇല്ല അവർ കൃത്യമായിട്ട് ഫോട്ടോ എനിക്ക് അയച്ച് തന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങളിൽ നിങ്ങളുടെ ഓഫീസില് വന്നപ്പഴ്ത്തേനും ഒരു കുഴപ്പവും ഇല്ലെന്ന് നിങ്ങൾ തന്നെ സ്ഥിതീകരിക്കുന്നു ഇതിന് ശേഷം എൻ്റെ കയ്യിൽ കിട്ടിയപ്പഴാണ് ഈ സാധനം കംപ്ലെയിൻറ് ഉള്ളതായിട്ട് കാണുന്നത് അപ്പം ഉറപ്പ് ആയിട്ടും എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കാനെ പറ്റുകയുള്ളൂ അപ്പോൾ ഒന്നുങ്കിൽ നിങ്ങൾ എനിക്ക് അതിൻ്റെ നഷ്ടപരിഹാരം തരിക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തന്ന് കൊടുത്ത് വിട്ട ആളുടെ സംസാരിച്ച് അതിൻ്റെ നഷ്ടപരിഹാരം എന്ത് സംഭവിച്ചു എന്ന് അവരെ അടുത്ത് ക്ലിയർ ചെയ്തിട്ട് അവരിൽനിന്ന് നഷ്ടഹാരം മേടിച്ച് തരിക ഇത് അല്ലാതെ എനിക്ക് ഒരു അതിനകത്ത് ഒരു ഓപ്ഷൻ പറയാനില്ല എന്നാലും നിങ്ങളൊരു സ്ഥാപനം നടത്തുമ്പം നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ പറയുന്നത് നിങ്ങളുടെ ഒരു ഡെലിവെറി ബോയ് ആണല്ലോ നിങ്ങൾ വച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അത് നിങ്ങളുടെ ഒരു സ്റ്റാഫ് ആണ് ഇത് കൊണ്ട് നശിപ്പിച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് തീർത്തും മോശകരമായ കാര്യമാ അപ്പം ഇങ്ങനെ എങ്ങനെ എന്ത് വിശ്വസിച്ച് ഞാൻ ഞാൻ നിങ്ങളെ ഡെലിവെറി ഓഫീസുമായിട്ട് ഇനിയും മുന്നോട്ടുള്ള എന്തോരം സാധനങ്ങൾ അയക്കണമെങ്കിൽ ഞാൻ ബന്ധപ്പെടും